പഴയ തലമുറയും യുവ തലമുറയുടെയും ജീവിത ശൈലി വളരെ വ്യത്യസ്തമാണ് പഴയ തലമുറ അന്നന്ന് പണിയെടുക്കുകയും അന്നന്നത്തെ കാര്യങ്ങൾ ചെയ്തു പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരുമാണ് കൂടാതെ അവർ ചിലവാക്കുന്നത് പഴയ തലമുറ പല അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെട്ടവരുമാണ് അവർ അമ്പലങ്ങളിൽ പോവുകയും സന്യാസിമാരെ കാണുകയും അവർക്ക് വേണ്ടി പല പൂജകൾ ചെയ്യുകയും പല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്ന ആൾക്കാരുമാണ് എന്നാൽ യുവ തലമുറ ഇതിൽപ്പെട്ടവരല്ല ഒരു മാസം പണി എടുക്കുകയും ആ പണം കൊണ്ട് കിട്ടുന്ന പണം കൊണ്ട് മദ്യത്തിൻ്റെയും മയക്കു മരുന്നിൻ്റെയും അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് യുവ തലമുറ ഇതിൽ ഇടയ്ക്ക് മദ്യത്തിൻ്റെ മധ്യത്തിലുള്ള തലമുറയാണ് നമ്മൾ നമ്മൾ പഴയ തലമുറയുടെ പല കാര്യങ്ങളും കണ്ടും കേട്ടും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് യുവ തലമുറയെ നോക്കി അവരുടെയും അവരെ ഉപദേശിച്ചും അവരെ കാര്യങ്ങൾ നേരെ ആവാൻ വേണ്ടി അവരെ ഉപദേശിച്ചും നേരെ നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് നേരായ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ